ഇല്ല അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ ഞാനൊരു ഗ്രാമപ്രദേശത്തായതുകൊണ്ട് ഇവിടെ പഞ്ചായത്ത് ഓഫ് പഞ്ചായത്തും അതുപോലെ വില്ലേജ് ഓഫീസും കുറച്ചും കൂടി വില്ലേജ് ഓഫീസ് കുറച്ചും കൂടി അടുത്താണ് പഞ്ചായത്ത് കുറച്ചും കൂടി ദൂരമാണ് അവിടെ നമുക്ക് പോവണ സമയത്ത് നമുക്കധികം ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മള് പറയണ കാര്യങ്ങൾ കേൾക്കാനോ ഒക്കെ ആൾക്കാരൊക്കെയുണ്ട് അഴിമതിയെന്നു പറയാൻ ഇതുവരെ ഒന്നും അഴിമതി ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അഴിമതിക്ക് ഇരയായിട്ടുണ്ടോ എന്ന് പറയാനും മാത്രം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല